നമുക്കെന്ന് വെച്ചിട്ടുണ്ടങ്കില് ഒരുപാട് നമ്മുടെ ജില്ലയിൽ ഒരുപാട് പിന്നെ മനുഷ്യന്മാർക്ക് ശ്രദ്ധേയം ആയിട്ടുള്ള സ്ഥലങ്ങള് പിന്നെ വിനോദ സഞ്ചാര ആകർഷക ഒക്കെ ഒരുപാടുണ്ട് നമുക്ക് എന്താന്ന് വച്ചിട്ടുണ്ടെങ്കില് സന്ദർശകർക്ക് അതായത് ഒരുപാട് സന്ദർശകർ വരുന്ന ഒരുപാട് പിന്നെ വിനോദ സഞ്ചാരകേന്ദ്രങ്ങൾ നമ്മുടെ ജില്ലയിൽ ഒരുപാടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിരലിൽ എണ്ണാനാവാത്ത ഒരുപാട് വിനോദസഞ്ചാരങൾ കാര്യങ്ങളുണ്ട് അതായത് ഒരുപാട് ആകർഷണങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ പിന്നെ കടലുണ്ടി പക്ഷി സങ്കേതം ഒക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പക്ഷി സങ്കേതമാണ് അതിൽ തന്നെ നമുക്ക് ദൂരെ ദൂരെ നിന്നുള്ള വിദേശികള് കാര്യങ്ങളൊക്കെ വന്നു കാണാനും പിന്നെ ടൂറിസ്റ്റുകൾ ഒക്കെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതുപോലെത്തന്നെ നമുക്ക് മാനാഞ്ചിറ മാനാഞ്ചിറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇപ്പം നമ്മള് ടൂറിസ്റ്റ് പ്ലേസ് അല്ലെങ്കിലും നമുക്ക് അല്ലാത്ത അതായത് നമ്മൾ ഇപ്പോൾ അയൽ ജില്ലകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും ഒരുപാട് ആൾക്കാര് വന്നു സന്ദർശിച്ച് കാണുന്ന പിന്നെ സ്ഥലങ്ങളാണ് ഇതൊക്കെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെത്തന്നെ പിന്നെ ഹൈലൈറ്റ് മാള് അതായത് മാളിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമ്മളെ ലുലുമാൾ ഒക്കെ പോലെള്ള വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു മാളു തന്നെയാണ് നമ്മുടെ കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാൾ